ഈ ഐ ഐ ഐ ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥാപനമാണ് ഐ ഐ ടി ഐ ഐ എസ് എസ് സി ഐ ഐ എം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള സ്ഥാപനമാന്ന് അതിൽ നിന്ന് പറയുവാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പാവപ്പെട്ടവരെ പോലുള്ളവർക്കൊന്നും മുൻഗണനയില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത് ഈ ഉയർന്ന ഉയർന്ന ജാതിയിലുള്ളവർ മാത്രമാണ് അവർ എടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവർക്കൊന്നും മുൻഗണയില്ലാത്തതിനാൽ തന്നെ അതൊക്കെ നമുക്കിട്ട് ഭയങ്കര ബുട്ടിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ എന്താ മത്സരത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ തന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല ട്രെയിനിങ് ചെയ്യിപ്പിച്ച് അത്യാവശ്യം നല്ല ഒരു മത്സരരീതി തന്നെ ആ സ്ഥാപനത്തെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താ പറയാ അവിടെ എല്ലാ മത്സരാർത്ഥികളും അത്യാവശ്യം നല്ലോണം ട്രെയിൻ ചെയ്യിപ്പിച്ച് നല്ല ഒരു മത്സരരീതി തന്നെയാണ് അവിടെ എല്ലാത്തിലും എല്ലാത് എല്ലാ ഇതിനും നടക്കുന്നത് മാത്രമല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല റേറ്റിങ്ങോടുകൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനാണ് ഐ ഐ ടി എന്ന് പറയുന്നത് അതിൻ്റെ മത്സര രീതിക്കാണെങ്കിലും എല്ലാത്തിനും നല്ല അത്യാവശ്യം വലിയ സപ്പോർട്ട് തന്നെ ആ സ്ഥാപനം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാം എന്നുള്ള തെറ്റ് തന്നെ എന്താ പറയാ നമ്മുടെ പാവപ്പെട്ടവർക്ക് മാത്രം മുൻഗണനായില്ലാന്നുള്ളത് ഈ ഉയർന്ന ജാതിയിലുള്ളവരെ മാത്രമാണ് അവർ കൂടുതലും ആ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയുന്നത് പാവങ്ങൾക്ക് മാത്രം ഒരു മുൻഗണയില്ല അതൊരു ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ബാക്കിയെല്ലാം മത്സരത്തിൻ്റെ കാര്യത്തിനൊക്കെ ആ ആ സ്ഥാപനം എന്നും മുന്നോട്ട് തന്നെയാണ് ഉള്ളത്